നമുക്ക് ബാങ്കിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചില സ്റ്റാഫുകൾ നമുക്ക് നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറലും നമുക്കതിനുള്ള സൊല്യൂഷൻസൊക്കെ തരുന്നതും ചില സ്റ്റാഫുകൾ നമ്മള് അത് പറയുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റില്ലായ്മ അങ്ങനെയൊക്കെ വരാറുണ്ട് ചിലവര് നല്ല രീതിക്കല്ല നമ്മുടെ അടുത്ത് സം അവരിൻ്റെ ആ ഒരു പവറ് ഉള്ളതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഒരു ജാഡ കാണിക്കാറുണ്ട് ഞാന് ഇതുവരെ എനിക്ക് പോയ അങ്ങനെ ചില മോശപ്പെട്ട അനുഭവങ്ങളക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് പോയാലും നമ്മളെ നോക്കാതെ നിക്കാമ ടൈ എന്താണ് ഈ ടൈം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു വാ അങ്ങനെ പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അവര് അവരിൻ്റെ പവറ് യൂസ് ചെയ്ത് അവര് നമുക്ക് ഹെൽപ്പ് ചെയ്യാതെ നമ്മളെ നമക്കതില് ഒരു തെറ്റ് പറ്റി അങ്ങനെയുടെങ്കിൽ അവരതൊന്ന് തിരുത്തി തരാതെ നിങ്ങള് പോയി വേറെ ഫോം ഫില്ല് ചെയ്തിട്ട് വാ വേറൊരിത് ചെയ്തിട്ട് വാ അത് നമ്മള് പഠിച്ചവരിൻ്റെ അടുത്താണ് കുറച്ച് വയസ്സായവര് അങ്ങനെ ഇവരൊക്കെ പോകുന്ന കാണുമ്പം നമ്മളത് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കത് ചെയ്തു കൊടുത്തൂടെ അറിയാം അവർക്ക് കുറെ വർക്കുണ്ട് എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേകുകള് വരുമ്പം അവർക്കത് തിരുത്തി അത് ചെയ്ത് കൊടുക്കാൻ പോലും അവര് ചിലവര് തയ്യാറാവണില്ല ചില ജീവനക്കാർ ചിലവര് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യണ്ടതെന്നെല്ലാം നമുക്ക് നല്ല രീതിക്ക് അവര് പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഇതും നമ്മള് നേരിട്ടിട്ടുണ്ട് ബാങ്കില് പറഞ്ഞ് കഴിഞ്ഞാൽ